തീർച്ചയായും അങ്ങനെ ഒരു കലാകാരൻ ഉണ്ട് അവർക്ക് ഡിഗ്രി പിന്നെ ഡ്രോയിങും പെയിൻറിങും എടുക്കണം എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ കുറച്ച് വിരളിൽ എണ്ണാവുന്നത്രയെ ഉള്ളൂ ആർട്സ് കോളേജുകൾ അതിലൊന്നാണ് രാജാരവിവർമ്മ കോളേജ് പിന്നെ യൂണിവേഴ്സൽ ആർട്സ് കോളേജ് തളിപ്പറമ്പ് ഉണ്ട് വടകരയിൽ ഒരു കോളേജുണ്ട് അപ്പോൾ നമ്മൾ അവരെ അവിടേക്ക് പറഞ്ഞു വിട്ട് നല്ല നല്ല കോഴ്സുകൾ എടുത്ത് അവരുടെ കലാശേഷി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അവർക്ക് അതിലും നല്ലത് ആക്കാൻ പറ്റും പിന്നെ എനിക്ക് നല്ല നല്ല ചിത്രം വരച്ച് അത്ര നല്ല കലാകാരന്മാരുടെ അടുത്ത് പോയി കാണിക്കണം എന്നൊക്കെയുണ്ട് അതായത് ജീവിച്ചിരിക്കുന്ന ചിത്രങ്ങൾ പോലുള്ള ചിത്രങ്ങളൊക്കെ വരക്കണമെന്നുണ്ട് എനിക്ക് എന്റെ ഒരു ആഗ്രഹം ആണ് മറ്റേ വടക്കുംനാഥ ടെമ്പിളിന്റെ അവിടെ പോയി നിന്നിട്ട് ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ളത്